ഇന്ത്യയിൽ സാധാരണയായി സംസാരിച്ച് കണ്ടുവരുന്ന ഭാഷകൾ ഭാഷകളില് ഹിന്ദി മലയാളം തമിഴ് ഉറുദു മറാഠി ഗുജറാത്തി ഗുജറാത്തി ഒരു ഭാഷയല്ല ഹിന്ദിയുടെ ഒരു ഡയലക്റ്റാണ് കന്നഡ ഈ ഭാഷകളൊക്കെ ഉൾപ്പെടും ഇതിന് പുറമേ അല്ലാതെ സ്കൂളുകളിൽ നമ്മൾ സംസാരിച്ചുവരുന്ന ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് പലരും ഇംഗ്ലീഷ് കൂടുതല് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നു ഇംഗ്ലീഷല്ലാതെ മറ്റു ഭാഷകൾ നമ്മൾ ഭാരത്തിലല്ലാത്ത ഭാഷകൾ സംസാരിക്കുന്നതു കുറവാണ് അപ്പോള് മറ്റു ഭാഷകൾ പഠിച്ചവരാണേ അതുപയോഗിക്കും ഇപ്പോൾ ജർമ്മനൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് സ്പാനിഷൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവാം ഭാഷകളങ്ങനെ പഠിക്കുന്നവരങ്ങനെ ഉപയോഗിക്കുമായിരിക്കും അല്ലാതെ ഔദ്യോഗികമായിട്ട് പൊതുവേ ഉപയോഗിച്ച് വരാറില്ല ഈ ഭാരതത്തിലെ പല സംസ്കാരങ്ങളുണ്ട് നമുക്ക് പല പദങ്ങൾ പല ജീവിതശൈലികളില്നിന്ന് വരുന്ന ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്ത് അവർക്ക് അവരവരുടേതായ ത്തിൻ്റെ ഒരു പ്രതീകം കൂടെയാണ് നമ്മുടെ ഇത്രയും ഭാഷകൾ ഉള്ളത് തന്നെ ഓരോ ഓരോ സംസ്ഥാനത്തിനും നമുക്ക് വേണമെങ്കില് പറയാം അതിൻറ്റേതായ ഭാഷയും ശൈലികളും പല ഭാഷകളും പല ശൈലികളുമുണ്ട് അതുകൊണ്ടുതന്നെ പല ഇതിൻ്റെ ഭാരതത്തിൻ്റെ ഒരു വൈവിധ്യത്തെ കാട്ടുവാൻ നമ്മുടെ ഭാഷകളൊക്കെ വേണേ നമുക്ക് നോക്കാം